നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിൻ്റെ കീഴിൽ നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അത് കേരളം ഉൾപ്പടെ നമ്മുടെ രാജ്യത്തുള്ള ഇരുപത്തെട്ട് സംസ്ഥാനങ്ങൾക്കും പൗരന്മാർക്ക് കൊടുക്കേണ്ട ചില അവകാശങ്ങളും പരിരക്ഷകളും അവർക്ക് വേണ്ടിയുള്ള പല കാര്യങ്ങളും നമ്മുടെ നിയമപരമായിട്ട് നമ്മുടെ ഭരണഘടന അനുഛേദിക്കുന്നുണ്ട്

ഏതൊരു പൗരനും നമ്മുടെ കേരത്തിൽ ആയാലും മറ്റു സംസ്ഥാനങ്ങളിലായാലും ഏതൊരു പൗരനും ഉള്ളൊരു അവകാശമാണ് ആ പൗരന് ഇഷ്ടമുള്ള ജോലി ചെയ്യുക ആ പൗരന് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കുക ആ പൗരന് ജീവിതത്തിൽ എന്ത് ചെയ്യാനാണോ ബിസിനസ് ചെയ്യാനാണോ അല്ലെങ്കിൽ പഠിക്കാനാണോ അല്ലെങ്കിൽ സയന്റിസ്റ്റ് ആകാനാണോ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാനാണോ അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പൗരൻ എന്ന നിലയിൽ ആ പൗരൻ്റെ അവകാശമാണ് അപ്പം ഈ എന്ത് ഇങ്ങനത്തെ എന്ത് അവകാശങ്ങളും പരിരക്ഷിക്കേണ്ടതും പിന്നെ നടത്തി കൊടുക്കേണ്ടതും നമ്മുടെ നിയമത്തിൻ്റെ ഒരു ബാധ്യതയാണ് അത് ഈ കേരത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട്